എനിക്ക് താല്പര്യം തോന്നിട്ടുള്ളത് അതായത് വാർത്തയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാർത്തകളൊക്കെ ഒരുപാട് കാണാൻ ഇഷ്ടം ആണ് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം ഞങ്ങളുടെ പ്രായക്കാർക്ക് ഒക്കെ എന്ന് പറയുവാണെങ്കില് വാർത്തെനോട് ഒന്നും വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല കൂടുതൽ ആൾക്കാരും സിനിമ സീരിയല് ആ ഒരു ഇതില് പോകും പക്ഷെ എനിക്ക് വാർത്ത കാണാൻ ഭയങ്കര ഇഷ്ടം ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തെ അപ്ഡേറ്റുകള് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും വാർത്തേന്നൊക്കെ അപ്പോൾ എനിക്ക് വാർത്ത കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് വാർത്തയില് പല പല രീതിയില് ഉള്ളത് ഇതിപ്പോൾ കൂടുതലും പീഡനവും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്കറിയാം പിന്നെ ഷാരോൺ വധ കേസിലെ പ്രതിനെ ഇപ്പോൾ വെറുതെ വിട്ടു ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണ് ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് അപ്പോൾ ആ പെണ്ണ് പെണ്ണായതുകൊണ്ടാണ് അവളെ അതായത് ജാമ്യത്തില് വിട്ടത് ശരിക്കും പറഞ്ഞാൽ ഒര് ഒരാളെ വിഷം കൊടുത്ത് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും വിശ്വസിച്ച് നടക്കുന്ന ഒരാളെ വിഷം കൊടുത്ത് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയൊരു ക്രൂരത വേറെ ഇല്ല അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യമായിട്ടുള്ള ശിക്ഷകള് കൊടുക്കണം അല്ലാണ്ട് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടാലും അതൊന്നും അത്ര നല്ല കാര്യം അല്ലാ അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്